ആ പറഞ്ഞോളു ആ അതേ അതിൽ അല്ല അതെ മേഡം ഞങ്ങളിവടെ ഒരു കിലോയ്ക്ക് അൻപത് രൂപ വെച്ചാണ് കൊടുക്കുന്നത് ഞങ്ങൾ അപ്പോൾ ഒരു ഇല്ല ഞങ്ങൾ കളറോ മായങ്ങളോ അങ്ങനെയൊന്നും ചേർക്കാതെ നാച്ചുറൽ ആയിട്ട് ഉണ്ടാക്കിയതാണ് അത് വേണേൽ നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുകയും ചെയ്യാം ഞങ്ങൾ ആദ്യം കുറച്ച് അരി മേടിച്ച് നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം ടെസ്റ്റ് ചെയ്തതിനു ശേഷം മാത്രം നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ മാത്രം മേടിച്ചാൽ മതി അത് അപ്പം അതിൽ അപ്പം അതിൽ അതിൻറ്റേതായ കെമിക്കൽ അതിൻറ്റേതായ ഒരു ദോഷങ്ങളും ആ അരിക്കുണ്ടാകും അതായിരിക്കും അത്ര വില കുറച്ച് അവർ അത് കൊടുക്കുന്നത് ഞങ്ങളുടേത് എന്ന് പറയുമ്പോൾ കൃത്യം നല്ല പ്യുവറായത് നല്ല അടിപൊളി അരിയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഞങ്ങളൊരിത് തരാം അത് നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നിങ്ങൾക്കിഷ്ടപ്പെട്ടാൽ മാത്രം നിങ്ങൾ മേടിച്ചാൽ മതി അല്ലേൽ കുഴപ്പമില്ല അമ്മ ഉണ്ട് പ്രിയം ഉണ്ട് പിന്നെ മംഗളം ഉണ്ട് അങ്ങനെ എല്ലാത്തരം അരികളും ഉണ്ട് അതിനിതുപോലെതന്നെ ഒരു കിലോ നാൽപത് രൂപ ഇതിപ്പോൾ ഓരോ അരിക്കും ഓരോ റേറ്റ് ആണ് എപ്പം ആ മംഗളത്തിനാണെങ്കിൽ ഒരു കിലോയ്ക്ക് നാൽപത് രൂപ നാല്പത്തഞ്ച് രൂപ ആ ഒരു റേറ്റ് വരും അമ്മക്കാണെങ്കിൽ അതുപോലെ തന്നെയൊരു അറുപത് രൂപ അങ്ങനെ ഓരോന്നിനും ഓരോ റേറ്റ് വെച്ചാണ് വരുന്നത് മാഡത്തിന് ഏതാ വേണ്ടതെന്ന് പറയുവാണെങ്കിൽ നമ്മൾ അത് അവിടെ ഓൺലൈൻ സർവ്വീസും ഉണ്ട് നമുക്കവടെ ആം ഓൺലൈൻ സർവ്വീസുണ്ട് അഡ്രസ്സും ഫോൺ നമ്പറും അങ്ങനെ ഉള്ള എല്ലാ കാര്യങ്ങളും തന്നാൽ മതി പാലക്കാ മ്മ് ഡിലെ ഇച്ചിരി താമസം വരും എന്നേ ഉള്ളു അവടെ നമുക്ക് ഓൺലൈൻ ഇതുണ്ട് നമ്മുടെ വേറൊരു ഷോറൂം അവിടെ അടുത്ത് ഉണ്ട് താനും അവിടെ നിന്നാണെങ്കിലും അയച്ച് തരുന്നതായിരിക്കും ആം മേഡത്തിനിവിടെ നിന്ന് വരുന്ന ചെറിയൊരു എല്ലാമൊന്ന് സെറ്റായി വരുന്ന ഒരു ഡിലെ അത്രയും ഉള്ളൂ നിങ്ങളുടെ അഡ്രസ്സും ഫോൺ നമ്പറും ഏത് ഇഷ്ടപ്പെട്ടില്ലേൽ നിങ്ങൾക്ക് തിരിച്ച് നോക്കാം തിരിച്ച് തരാം നമ്മൾ ആദ്യം ഈ സാമ്പിൾ നോക്കുന്നതായിരിക്കും നല്ലത് സാമ്പിൾ നോക്കി നല്ലതാണേൽ മാത്രം മേടിച്ചാൽ മതി വേണ്ട അത് ഫ്രീ ആയിട്ട് തരാം സാമ്പിൾ ആയിട്ട് നിങ്ങൾ നോക്കു അത് നോക്കിയിട്ട് സാധനം നിങ്ങൾക്കിഷ്ടപ്പെടുവാണെങ്കിൽ അത് നിങ്ങൾക്ക് ഇവിടെ നിന്ന് കൊറിയർ സർവ്വീസ് വഴി ഞങ്ങളയച്ച് തരുന്നതായിരിക്കും മാഡത്തിന് അത് ദൂരം ഒര് കിലോ ഇല്ല അഞ്ച് കിലോമീറ്ററിന് ഇത്രയും രൂപ വെച്ചാണെന്നുള്ള കാരണം ഇത്ര ഇത് ഇതുണ്ടല്ലൊ അതുകൊണ്ടാണ് അത് അനുസരിച്ചുള്ള ചെറിയ റെയ്റ്റ് വരും ആ അല്ലാ വേറെ ആം അല്ലാതെ വേറെ ഇതില്ല കാരണം ഇവിടെ നിന്ന് അവിടെ പാലക്കാട് വരെ എത്തിക്കണമല്ലോ അപ്പം നോക്കുവാണേൽ മേഡത്തിന് ഇഷ്ടപ്പെടുവാണെങ്കിൽ മേഡത്തിൻ്റെ അഡ്രസ്സും ഫോൺ നമ്പറുവെല്ലാം ഫോണിലേക്ക് അയച്ച് തന്നാൽ മതി ആ ഓക്കെ എന്നാൽ ശരി താങ്ക്യൂ